ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏഴ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ് പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത്